ഞാൻ എൻ്റെ യാത്ര സ്മരണ പങ്കുവെക്കാനാഗ്രഹിക്കുന്നത് ഞാന് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന അല്ല രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ നിന്നും അടുത്ത് അല്ല എൻ്റെ ഞാൻ പഠിക്കുന്ന സ്കൂളിൽ നിന്നും ഒരടുത്തൊരു പാർക്കുണ്ടായിരുന്നു അപ്പോൾ അവിടെയൊക്കെ ആയിരുന്നു നമ്മുടെ ഒരു പിക്നിക് എന്ന് പറയുന്നത് പോലുള്ള പോക്ക് അപ്പോൾ നമ്മള് രണ്ട് ഒന്ന് രണ്ട് മൂന്ന് ക്ലാസ്സുകളിലുള്ള കുട്ടികളെ ആയിരുന്നു അവിടെ കൊണ്ടുപോയിരുന്നത് അപ്പോൾ നമ്മളെല്ലാരും വലിയ വരി വരിയായിട്ട് വലിയ വരിയായിരുന്നു അവിടുന്ന് സ്കൂളിൽ നിന്നും ആ പാർക്ക് വരെ നടന്നിട്ടാണ് നമ്മളെ കൊണ്ടുപോയത് അതെനിക്ക് മറക്കാൻ പറ്റാത്ത ഇപ്പോഴും എൻ്റെ ഓർമയിൽ നിൽക്കുന്ന ഒരു വലിയ നല്ലൊരു ഓർമയാണിത് അപ്പോൾ ഞാന് എല്ലാ എല്ലാ ഏതൊരു സമയത്തും ഞാനീ ഈയൊരു യാത്ര എപ്പോഴും ഓർക്കുവായിരുന്നു നമ്മുടെ പ്രിയ കൂട്ടുകാരോടൊത്തു നമ്മൾ കളിച്ച് ചിരിച്ച് നടന്ന് പോയ ഈ ഒരു യാത്ര ഞാനെപ്പോഴും ഓർക്കുമായിരുന്നു